കേരളത്തിലെ കലാ കരകൗശല മേഖല എന്ന് പറയുന്നത് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്ന രണ്ടു മേഖലകളാണ് അതായത് കലയിലായിക്കോട്ടെ കരകൗശല വസ്തുക്കളിലായിക്കോട്ടെ എപ്പോഴും കേരളത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഈ രണ്ടും എന്ന് പറയുന്നത് അപ്പം അതിന്റ്റൊരു ഉപഭോഗം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും നമുക്ക് കാണാം കരകൗശല വസ്തുക്കളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാ പുല്ല് കൊണ്ടുള്ള പുല്പ്പായകളായിട്ടും അതുപോലെ ഈ മണ്ചട്ടികൾ അതുപോലെ തന്നെ എന്താ പറയാ ഫര്ണിച്ചറുകളിൽ തന്നെയാ കരകൗശല വിദ്യ നമുക്ക് കാണാനായിട്ട് മരപ്പണികള് ചെയ്യുന്നവര് ധാരാളമുണ്ട് കേരളത്തിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാത്തരത്തിലുള്ള അതിന്റെ ഒരു മുന്നേറ്റമാണ് നമുക്ക് ഓരോ വീടുകളിലും കാണാനായിട്ട് സാധിക്കും പലതരത്തിലും ഈ കരകൗശല വസ്തുക്കൾ ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുള്ളത് കേരളത്തിലെ ഓരോ വീടുകളിലും ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അങ്ങനത്തെ വസ്തുക്കൾ ഉണ്ടാക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സബ്സിഡികൾ നൽകുന്നതും അതുപോലെ തന്നെ നമുക്ക് താങ്ങാവുന്ന തരത്തിലുള്ള ഒരു വില തന്നെയാണ് ഇപ്പോഴും ഉപഭോക്താവിനാണെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റുന്ന ഇതിൽ വിലക്ക് മേടിക്കാനായിട്ട് പറ്റും അത് വില്ക്കുന്നവര്ക്കാണെന്നുണ്ടെങ്കിലും അതേ നല്ല രീതിയിലുള്ള സബ്സിഡീം കാര്യങ്ങളുമൊക്കെ കേരള സർക്കാർ ഉറപ്പ് വരുത്തുന്നുണ്ട് അത്പോലെ കലാ മേഘലകളിലായിക്കോട്ടെ എല്ലാ തരത്തിലുള്ള കലകള്ക്ക് കല നന്നായി സംഭാവന നല്കുന്ന ഒരു സംസ്കാരം തന്നെയാണ് കേരളത്തിലുള്ളത് പ്രത്യേകിച്ചിപ്പോൾ തൃശ്ശൂരിന്റെ കാര്യേടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതല് സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് അപ്പോൾ കലയ്ക്ക് വളരെയധികം ഒരു പ്രാമുഖ്യം കൊടുക്കുന്നതാണ് കേരളത്തിലെപ്പോഴും കണ്ട് വന്നിട്ടുള്ളത്